ഹലോ ആ സാറെ ഞാൻ വിളിക്കുന്നത് നമ്മുടെ ടി ടി ആർ ഫോണിൻ്റെ ഞാന് ഒരു ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആ അപ്പോൾ അതിൻ്റെ എൻ്റെ അനിയൻ വേറെ ഫോണെടുത്തു അപ്പം അവൻ കുറച്ച് പൈസയും കൊടുത്ത് അവൻ വേറെ ഫോൺ മേടിച്ചു തന്നു അപ്പോൾ ഒന്നാമതിനകത്ത് ആക്സസ് കുറവല്ലേ കാരണം നാല് ജി ബി റാമേ ഉള്ളൂ ഇവനെടുത്ത് തന്നത് പന്ത്രണ്ട് ജി ബി റാമേജ് നൂറ്റി ഇരുപത്തെട്ട് സ്റ്റോറേജും ഉണ്ട് ആ പിന്നെ അതു മാത്രമല്ല അത് ഫൈവ് ജി ഫോണല്ലല്ലോ ഇവൻ അനിയൻ കൊണ്ടു വന്നു തന്നത് ഫൈവ് ജിയുടെ ഫോണാണ് കുറച്ച് ജലദോഷമുണ്ട് അപ്പം വർത്താനം പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ വേഗം പറഞ്ഞിട്ട് നിർത്താം അപ്പം അനിയൻ കൊണ്ട് നന്നിരിക്കുന്ന ഫോൺ നല്ല ഫോണാണ് അപ്പോൾ എനിക്ക് ഫോൺ ഇത്രയും ആക്സസുകളും കാര്യങ്ങളും കുറവുള്ളതു കൊണ്ട് പോരാത്തതിന് ചാർജും ഇല്ലല്ലോ ആകെ രണ്ടായിരത്തഞ്ഞൂറ് എം എച്ച് അല്ലേ ഉള്ളൂ അതിനെയും കൊണ്ടു വന്നത് ആറായിരത്തഞ്ഞൂറ് എം എച്ച് ബാറ്ററിയുണ്ട് അപ്പം പിന്നെ ആ ഫോണല്ലേ നല്ലത് അപ്പം എന്തു കൊണ്ടും എനിക്കാ ഫോൺ തന്നെയാണ് നല്ലത് അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഞാൻ പൈസ അഡ്വാൻസ് അയച്ചിരുന്നല്ലോ അതൊരു കാര്യം ചെയ്യൂ അത് റിട്ടേൺ അയച്ചോളൂ ഇങ്ങോട്ട് ഞാൻ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു തരാം അത് റിട്ടേൺ അയച്ചോളൂ ആ അത് കാരണമത് എടുക്കാൻ താല്പര്യമില്ലല്ലോ സാറേ പിന്നെ എങ്ങനെയാണ് നമ്മളത് എടുക്കുക ആ ആ അത് പൈസ അയച്ചോളൂ ഓർഡർ എന്തെങ്കിലും ചെറിയ പൈസ നിങ്ങൾ വേണമെങ്കിൽ അവിടെ പിടിച്ചോ അതൊന്നും കുഴപ്പമില്ല ബാക്കി തന്നാൽ മതി ഓക്കേ അല്ലേ അപ്പോൾ നോക്കിയിട്ട് പറയൂ കേട്ടോ ശരി അപ്പം ക്യാൻസൽ ചെയ്തിട്ടുണ്ടേ ഓക്കെ താങ്ക് യൂ